വ്യത്യസ്ത ഋതുക്കൾ എങ്ങനെ ആസ്വദിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം വസന്ത കാലം പിന്നെ ശിശിര കാലം അങ്ങനെ ഒരുപാട് ഋതുക്കൾ ഉണ്ടല്ലോ അപ്പം വസന്ത കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം വേനൽക്കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് പപ്പടം പോലുള്ള പ്രാദേശിക വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കും അതായത് ചക്ക പപ്പടം കപ്പ പപ്പടം അരി പപ്പടം അങ്ങനത്തെ അതൊക്കെയാണ് ചക്കയുടെ കാലത്തോക്കെ ആകുമ്പോൾ ചക്ക നമ്മള് നല്ലോണം പുഴുങ്ങി പിന്നെ മഞ്ഞ പൊടി ഒക്കെ ഇട്ടിട്ട് പുഴുങ്ങിട്ട് പപ്പടത്തിൻറ്റ രൂപത്തിലാക്കി ഉണക്കി എടുക്കും അത് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ വേനൽ അവധി അതായത് ഏപ്രിൽ മെയ്ല് അവധി ആയിരിക്കുമല്ലോ നമ്മൾ ആ സമയത്ത് മുത്തശ്ശൻറ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലൊക്കെ പോകും പിന്നെ അതുപോലെ നമ്മള് അടുത്തുള്ള തോട്ടത്തിലും കാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് തോട്ടത്തില് അതായത് നമ്മള് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതായത് വേനൽ അവധിക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടെ നിന്നിട്ട് ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ പിന്നെ കാടുകളിലൊക്കെ നടക്കാൻ അതായത് കറങ്ങാനൊക്കെ പോകും പിന്നെ അവിടുന്ന് എന്തെങ്കിലും പഴങ്ങളോ പൂക്കളോ ഒക്കെ ഉണ്ടെങ്കില് പറിക്കും പിന്നെ എന്ന് വെച്ചാൽ മഞ്ഞ് കാലത്തൊക്കെ നമ്മള് വൈകുന്നേരമൊക്കെ നല്ല തണുപ്പുള്ള സമയം നല്ല അതായത് വൈകുന്നേരം രാവിലെ ഒക്കെ തണുപ്പുള്ള സമയത്ത് ചെറിയ കടികളും ചായയൊക്കെ കുടിക്കാൻ തന്നെ നല്ലൊരു ഫീൽ ആണ് അപ്പം ഈ ഓരോ ഋതുക്കളും ഓരോ ഋതുക്കളും ഓരോ വ്യത്യസ്ത തരം ഫീൽ ആണ് നമുക്ക് തരുന്നത്